നമുക്കിപ്പോൾ അങ്ങനെ നോക്കണേൽ ചില ഇടങ്ങളിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നു സ്ത്രീകൾക്ക് മുൻഗണ നൽകാതെ ചിലയിടങ്ങളിൽ മാത്രം അങ്ങനെയുണ്ട് എന്ന എല്ലായിടങ്ങളിലൊന്നും അങ്ങനെയില്ല പക്ഷേ ചിലയിടങ്ങളിൽ പാവപ്പെട്ടവരെ മാറ്റി നിർത്താൻ അല്ലേ സ്ത്രീകളെ മാറ്റി നിർത്താൻ അങ്ങനെയുളളതൊക്കെ ചിലയിടങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ ഇടങ്ങളിലും ഇക്കാലത്തിലില്ല മുന്നേയുള്ള കാലത്തിലൊക്കെ സ്ത്രീകൾക്ക് അവസരങ്ങളെല്ലായിടങ്ങളിലും അങ്ങനെ കിട്ടില്ലായിരുന്നു സ്ത്രീകൾക്കും അതേപോലെ ഈ പാവപ്പെട്ട ഗ്രാമീണ മേഖലകളിലുള്ള ആൾക്കാർക്കും ഒന്നും അങ്ങനെ എല്ലാ ഇടങ്ങളിലും പണ്ട് പണ്ട് ഒട്ടും അങ്ങനെ കിട്ടുകയില്ല അവർക്ക് സർവ്വകലാശാലയിലാണെങ്കിലും കോളേജുകളിലൊക്കെ അവർക്കെങ്ങനെ പഠിക്കാനുള്ളൊരവസരമാണെങ്കിൽ സ്ത്രീകൾക്ക് വളരെ കുറവായിരുന്നു പണ്ടത്തെ കാലത്ത് പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒക്കെ അവർക്ക് എല്ലായിടത്തും അവരെല്ലാവരും തുല്യരായിട്ടെന്നാണ് കാണുന്നത് പിന്നെയും എനിക്ക് തോന്നിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട് ഗ്രാമീണ മേഖലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൂടെ ബുദ്ധിമുട്ടും അല്ല അവർക്ക് അവസരങ്ങൾ കിട്ടാണ്ട് വരുന്നുണ്ട് അതായിരിക്കും പിന്നെയും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് പിന്നെ പാവപ്പെട്ടവരെ പാവപ്പെട്ട ജാതിയിൽ വരുന്നവർക്ക് കോളേജിൽ ചിലപ്പം അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പാവപ്പെട്ടവരെ മുന്നിൽ നിർത്തുന്നു അവർക്കാദ്യം അവർക്ക് വേണ്ട കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നൂന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഇപ്പോൾ ഈ കാലത്തിൽ ഇല്ല പണ്ടത്തെ കാലങ്ങളിലായിരുന്നു സ്ത്രീകൾക്കും പാവപ്പെട്ടവരെയും വേർതിരിച്ചു തന്നെ നിർത്തുന്ന ഒരു ഇതുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലുള്ള തുല്യമായിട്ട് തന്നെയാണ് അവരെ പരിഗണിക്കുന്നത് അതുപോലെ പാവപ്പെട്ടവരെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുൻതൂക്കം ഈ ഒരു കാലത്തിൽ ഉണ്ട്